ശീർഷാസനം നമുക്കൊരുപാട് വഴക്കവും ശക്തിയും കൂട്ടാൻ സഹായിക്കുന്നുണ്ട് കാരണം ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ശരീരമെല്ലാം മനവുകയും പിന്നെ വഴക്കവും ശക്തിയെല്ലാം അത്യാവശ്യം കിട്ടാനുള്ള സാധ്യത വളരേ കൂടുതലാണ് പിന്നീട് നമുക്ക് ആദ്യം ശീലമാവുന്നത് വരെ ചെറിയ വേദനകളുണ്ടാവും ശരീരത്തിന് ശീലമായിക്കഴിഞ്ഞാൽ പിന്നെ ആ വേദന പോവും ഇത് ശീലമാകാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കണം പിന്നെ ഇത് ചെയ്യുന്നവർക്ക് ഒരുപാട് ശ്വാസംമുട്ടലും കാര്യങ്ങളെല്ലാം ഒഴിവായിക്കിട്ടും